ആ പറയ് ല്ലെ ഓണം ഒക്കെ ആയി ഓണത്തിന് പരിപാടി ഉണ്ടല്ലെ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ എന്താ പ്ലാൻ എത്ര വേണമെന്നൊക്കെ ആണ് ലൈറ്റെന്ന് പറയുമ്പോൾ ചെണ്ടുമല്ലിയുണ്ട് വാടാമല്ലി റോസ് ജമന്തി ചെണ്ടുമല്ലിതന്നെ ഇപ്പോൾ നമുക്ക് രണ്ട് തരം ഉണ്ട് മഞ്ഞയുണ്ട് ഓറഞ്ചുമുണ്ട് ചെണ്ടുമല്ലിക്ക് കുറച്ച് റേറ്റ് കുറച്ച് കമ്മിയായി കിട്ടും പക്ഷെ അത് വാടാമല്ലി റോസ് ജമന്തിക്കൊക്കെ നല്ല കുറച്ച് റേറ്റ് ഉണ്ട് നമുക്ക് അപ്പോൾ എത്ര കിലോ വേണമെന്നനുസരിച്ച് നമ്മൾ എന്തെലൊക്കെ ബൾക്ക് ആയിട്ട് എടുക്കുമ്പോക്കെ കമ്മി ആയി കിട്ടും അതൊന്നും കുഴപ്പമില്ല ഒക്കെ റെഡി ആക്കാം അഞ്ച് കിലോ അഞ്ച് കിലോ അല്ലെ ഇതിപ്പോൾ ചെണ്ടുമല്ലിക്ക് എൻപത് റുപ്പിയാണ് കിലോയ്ക്ക് നമുക്ക് നിങ്ങൾ കൂടുതൽ എടുക്കുന്നുണ്ടേൽ നമുക്ക് ഒരു കമ്മി ആക്കാം എഴുപത് രൂപക്ക് തരാം അത് കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ചെയ്തേക്കാം അതെടുക്കാം പിന്നെ റോസ് വേണോ റോസിന് നൂറ്റി അമ്പത് റുപ്പിയ ഉണ്ട് കിലോ നമുക്ക് ഇപ്പോൾ സീസൺ ഉണ്ട് ഇപ്പോൾ മഴയൊക്കെ പെയ്ത കാരണമേ കുറച്ച് വരവ് കമ്മിയായി കുറച്ച് വില റേറ്റുണ്ട് നൂറ്റി അമ്പത് റുപ്പിയ ഉണ്ട് കുഴപ്പമില്ലല്ലേ റോസ് ഒരു അഞ്ച് അല്ലെ പിന്നെ വാടാമല്ലി ജമന്തി വാടാമല്ലിക്ക് നൂറ്റി എമ്പത് റുപ്പിയ നൂറ്റി എമ്പത് എമ്പത് നൂറ്റി എമ്പത് കുറച്ച് റേറ്റ് ഉണ്ട് ആ ഉ അതൊരു അഞ്ച് കിലോ എടുക്കാമല്ലേ ഇത് പരിപാടി എവിടെയാണ് അതെ അല്ലെ കോളേജോ ആ ഓക്കേ അപ്പോൾ ജ താമര ഇപ്പോൾ നമ്മളുടെ കയ്യിലില്ല നിങ്ങൾ വേണമെന്ന് പറയാണെങ്കിൽ നമ്മൾ അത് ഏർപ്പാട് എത്തിച്ച് തരാം മൂന്നെണ്ണം അല്ലെ ഒരു പീസിന് അൻപത് റുപ്പിയ വെച്ചിട്ട് ആ നൂറ്റി അൻപത് റുപ്പിയ ആ സംഭവം അതിന് വിലയുണ്ട് അത് കൊണ്ടാണ് നമുക്ക് വേറെ അവിടുന്ന് വാങ്ങണം അപ്പോൾ നമുക്ക് അത് പിടിക്കാനൊന്നും ഇല്ല അതാണ് തെച്ചി നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇല്ല നിർബന്ധം ആണെന്നുണ്ടെങ്കിൽ കുഴപ്പം ഇല്ല വേറെ അവിടെ ഉണ്ട് നമ്മൾ വിചാരിച്ചാൽ കിട്ടും ഓ രണ്ട് കിലോയോക്കെ കിട്ടും ജമന്തി ജമന്തി ഉണ്ട് പിന്നെ അരളി വെള്ളയുണ്ട് മഞ്ഞയുണ്ട് പിന്നെ അരളിയുണ്ട് അത് ചുവപ്പും ഉണ്ട് റോസും ഉണ്ട് രണ്ടും ഉണ്ട് അതിലെന്താ വേണ്ടിയത് നിങ്ങൾ പറയ് റേറ്റ് ഒക്കെ നിങ്ങൾ വിലയൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട അതൊക്കെ നമുക്ക് റെഡി റോസ് അല്ലെ എത്ര വേണം അഞ്ച് മതിയോ ആ ഓക്കേ ഓക്കേ ജമന്തിയോ വെള്ളയോ മഞ്ഞയോ വെള്ള മതി അല്ലെ വെള്ളയ്ക്ക് മഞ്ഞേനേയും കാട്ടിൽ കുറച്ച് റേറ്റ് ഉണ്ട് ഒരു ഇരുപത് റുപ്പിയ വ്യത്യാസം ഉണ്ട് കുഴപ്പം ഇല്ലല്ലോ എല്ലാം കൂടി എടുക്കുമ്പോൾ കമ്മിയാക്കാം അതൊന്നും ബേജാറാവണ്ട പിന്നെ വേറെ ഇത്ര മതിയോ ചെണ്ടുമല്ലിയായി അരളിയായി ജമന്തി റോസ് ആയി താമര തെച്ചി അല്ലെ ആ അരളിയുണ്ട് അപ്പോൾ നിങ്ങള് എപ്പോൾ വരും വൈകിട്ട് വരും അല്ലെ അപ്പോൾ ആക്കി പാക്ക് ചെയ്ത് വെക്കാം നിങ്ങൾ വന്നാൽ മതി വേറെ ഒന്നും വേണ്ടല്ലോ അല്ലെ ഓക്കേ ഓക്കേ വരുമ്പോത്തേക്ക് ഒക്കെ എല്ലാം പാക്ക് ചെയ്ത് വെക്കാം ചെയ്യാം